ഇന്ത്യയിലെ കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടാറില്ല നൂറിൽ ഒരാളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പം തൊണ്ണൂറ്റൊമ്പത് പേർ പുറകിൽ നിൽക്കുന്നൊരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാരുള്ളൊരു ഒരു സ്ഥാനമാണ് ഇന്ത്യയെന്നു പറയുന്നത് പക്ഷെയെന്നു വെച്ചാൽ ആയിരത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കലാകാരന്മാർക്ക് ഇനിയും തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടുപേർ ബാക്കിൽ നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഒരുപാട് കലാകാരന്മാരാണെങ്കിൽ നമുക്ക് ചുറ്റോടുചുറ്റും ഉണ്ടെങ്കിലും അവരെ ഒന്നും പ്രോത്സാഹിപ്പിച്ച് മുൻപന്തിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആർക്കും കഴിയുന്നില്ല അതിനുള്ള അവസരങ്ങൾ ഇന്ത്യയിലുള്ള മുൻ മുന്നാൾക്കാർ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യയിലുള്ള കലാകാരന്മാർക്കും മതിയായ പ്രാധാന്യവും അവസരങ്ങളും നൽകുന്നില്ല എന്നതാണ് എൻ്റെയൊരു അഭിപ്രായം പറയാനുള്ളത് അതിനുള്ള കാരണം ഒരുപാട് പേരുണ്ട് നൂറിലൊരാൾക്ക് കിട്ടുന്നതേ ഉള്ളൂ